സാമ്പത്തികം ആയിട്ടുള്ള വാർത്തകൾ പൊതുവെ പത്രം വഴിയാണ് അറിയുന്നത് അല്ലെങ്കിൽ ഫോണിലൂടെ കാണാറുണ്ട് അന്നത്തെ മാർക്കറ്റിൻ്റെ വിവരങ്ങളും ടീ വിയിലെ ന്യൂസ് വഴിയും ഒക്കെ അറിയാറുണ്ട് സാധാരണ ടീ വിയിൽ തന്നെയുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ചാനൽ വെക്കാറുണ്ട് ഫോണിലാണെങ്കിലും അന്നത്തെ ദിവസത്തെ സ്റ്റോക്ക് മാർക്കറ്റ് തുറന്നു കഴിയുമ്പോൾ ഓരോന്നിൻ്റെ വിലവിവരങ്ങൾ കാര്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാല്യൂസൊക്കെ അറിയാൻ പറ്റും പത്രത്തിൽ ആണെങ്കിൽ വിവരങ്ങൾ ഓരോ സാധനങ്ങളുടെ വില കൂടുന്നതും കുറയുന്നതും അതുപോലെ തന്നെ വിദേശനാണ്യങ്ങളും ആയിട്ടുള്ള രൂപയുടെ വളർച്ചയോ താഴ്ചയോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ആ കൂടുതൽ പത്രത്തിൻ്റെ ആണെങ്കിൽ ഹിന്ദുവിന് അകത്തും ആ റ്റുഡേയ്ക്കകത്തുമൊക്കെ അറിയാറുണ്ട് സാമ്പത്തിക വിവരങ്ങൾ ഒക്കെ അതിൻ്റെ ചാനലിൽ മലയാളമനോരമയിൽ ആണെകിലും അതിന് ഒരു പേജ് പ്രത്യേകം സാമ്പത്തികത്തിനായിട്ട് തന്നെ ഉണ്ട് അന്താരാഷ്ട്ര വിപണികളെക്കുറിച്ചും ഇന്ത്യയിലെ തന്നെ ഈ രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ചും ഒക്കെ ആ ആ പത്രം വഴി അറിയാറുണ്ട് അതുപോലെതന്നെ ഗൂഗിളിൽ സേർച്ച് ചെയ്തും നോക്കാറുണ്ട് സാമ്പത്തികമാന്ദ്യം നേരിടുന്ന സമയത്ത് ഏത് രാജ്യങ്ങൾ എന്ത് വഴിയാണ് അവർ ചെയ്തത് എന്നൊക്കെ നോക്കാറുണ്ട് ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ നല്ലത് എന്ന് ഒക്കെ ഏത് എവിടെയാണ് അവരുടെ വാർഷിക റിപ്പോർട്ടുകൾ ഒക്കെ വന്നിരിക്കുന്നത് എന്ന് ഒക്കെ ഗൂഗിൾ വഴി അറിയാൻ ചാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഫോണിലും സേർച്ച് ചെയ്യാറുണ്ട് അങ്ങനെയാണ് വിവരങ്ങൾ ഒക്കെ അറിയുന്നത്